ആ കേള്ക്കാം ഞങ്ങള്ക്കീ ഷർട്ട് ആനുവൽ ഡേയ്ക്ക് ചെയ്യാനായിരുന്നു ഞങ്ങള്ക്ക് ഒരു ഇരുപത്തിയെട്ടാം തീയതി ആ അതെയതെ അത് സാധാ ക്ലോത്ത് കോട്ടൺ ഇല്ല പ്ലെയിനാണ് അല്ല ഒരു ഇരുപത്തിയഞ്ചാള്

എത്ര മീറ്റര് വേണ്ടിവരും ഒരാള്ക്ക് ആ എന്നാണ് കിട്ടേണ്ടത് ആ ആ ഓക്കെ എത്ര മീറ്റര് വേണ്ടിവരും

ആ ആ പിന്നെ എത്ര പൈസയാകും

അങ്ങനെ പിന്നെ ആ അത് പറയാം പിന്നെ വേറെന്തെങ്കിലും ഡിസൈൻസെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഷർട്ടിൻ്റെ ബട്ടണ് ആ ഉണ്ടല്ലേ ഓക്കെ അപ്പോഴോരു നാളെത്തന്നെ കിട്ടണമല്ലേ സാധനം ആ നിങ്ങള് കളക്റ്റ് ചെയ്യുമോ ആ ആ ഇതെവിടെയാണ് കറക്റ്റ് എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് ആ ആ ആയിക്കോട്ടെ മുകളിലത്തേത് അല്ലേ ആ ആ ആയിക്കോട്ടെ

ഓക്കെ എന്നാല് അങ്ങനെ ചെയ്യാം ആയിക്കോട്ടെ